പരമ്പരാഗത നീന്തൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പ്രത്യേകിച്ച് ഐയ്മോ റോളോ നോക്കിട്ടല്ല നമ്മള് വെറുതേ വെള്ളത്തിൽ ചാടുന്നു കൈയും കാലും ഇട്ട് അടിക്കുന്നു തിരിച്ച് നീന്തി കയറുന്നു അതിന് പ്രത്യേകിച്ച് സാധനങ്ങൾ ഉപയോഗിക്കുന്ന തൊപ്പിയോ ഗ്ലാസ്സോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും ഉപയോഗിക്കാറില്ല ഒഴുക്ക മട്ടില് സാധാരണ ആണ് നീന്താം അതിനിപ്പോ ഒരു പ്രൊഫഷണൽ ടച്ച് ഉണ്ടാകുന്നില്ല പ്രൊഫഷണൽ ടച്ച് എന്ന് പറയണത് കറക്റ്റായിട്ട് പഠിച്ച് ഏത് രീതിയില് എത്ര സ്പീഡില് എങ്ങനെയൊക്കെ നീന്താം അതിന് എന്തൊക്കെ രീതിയിലുള്ള കൈയും കാലിൻ്റെയും ഉപയോഗമെങ്ങനെ അത് വെള്ളത്തിൽ അങ്ങനെ നീങ്ങണം എന്ന് തന്നെ കുറച്ചൊക്കെ നന്നായി മനസ്സിലാക്കിയിട്ടാണ് നീന്തണത് പക്ഷെ പരമ്പരാഗത രീതിയില് അങ്ങനെയൊന്നുമില്ല ഓരോരുത്തർ കുറച്ച് നേരത്തേ നീന്തണൊള്ളൂ അവര് കടലിലോ അല്ലെങ്കിൽ ഇതിലൊന്നും നീന്താനും പോണൊന്നുമില്ല അവര് നീന്തൽ കുളത്തിൽ പോകും നീന്തി കുളിച്ചു വരും കുളിക്കാനായിട്ട് പോണ പോലെ കുളിക്കുന്നേൻ്റെ കൂട്ടത്തിൽ നീന്തും അത്രേ ഉള്ളൂ പിന്നെ സാധാരണ നീന്തൽ കുളത്തിലാണ് നീന്തുക അതാണ് എനിക്കും ഇഷ്ടം കടലില് അല്ലെങ്കില് നദിയില് ഒക്കെ പോയി നീന്തണമെങ്കില് നമ്മള് നീന്തല് ഒരു പ്രൊഫഷണൽ ആയി കണ്ട് അതിനുള്ള വസ്ത്രധാരണകൾ നടത്തി അതിനുള്ള എക്വിപ്മെൻറ്സ് കൈയിൽ പിടിച്ച് അല്ലെങ്കിൽ എല്ലാ വിധ ഇതൊക്കെ ഉണ്ടായാൽ മാത്രമേ കടലിലൊക്കെ നീന്താൻ പറ്റുള്ളൂ കടലില് നീന്തണമെങ്കിൽ പ്രത്യേക പരിശീലനം തന്നെ വേണം